നിങ്ങൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു എ ഫോർ ഷീറ്റ് ആണെങ്കിൽ ഒരു എ ഫോർ ഷീറ്റിൻ്റെ സൈസ് അകത്ത് എത്ര എങ്ങനെ വരയ്ക്കാൻ കൊള്ളും എത്ര സൈസിലാണ് വരയ്ക്കാൻ കൊള്ളുക എന്ന് നോക്കിയിട്ടാണ് ഞങ്ങൾ വരയ്ക്കാറ് ഏറെ ഇഷ്ട്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രകൃതിയാണെങ്കിലും നേച്ചർ പിന്നെ വാട്ടർഫോൾസ് അങ്ങനെ പിന്നെ മൃഗങ്ങളാണെങ്കിലും ഫോറെസ്റ്റ് ഏരിയ വീടുകളാണെങ്കിലും അങ്ങനെ ഓരോ പ്രകൃതി ആസ്പദമായിട്ടുള്ളതാണ് ഞങ്ങൾ ഏറ്റവും ഏറെ ഇഷ്ട്ടപ്പെടാറ് വരയ്ക്കാനുള്ളത്